ആ ഹലോ ആ അതേ അതേ ആ ആ ആ ആണോ മാഡത്തിന്റെ പേരെന്തുവാണ് ആ ആ ആ ആ ആ ആ ആ ആ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു ആ ആ ആ അത് എനിക്ക് വളരെ ആ വളരെ ഉപകാരപ്രദമായിരുന്നു ആ ആ ആ പ്രയോജനപ്പെട്ടു ആ ആ ആ നമുക്ക് അതിന്റെ മൂന്ന് ഇരട്ടിയോളം കൂടുതൽ കിട്ടി ആ ആ ആ ആ അതെ അതെ അതെ അതേ ആ ആ ആ ആ ആ ഇൻ ആ ആ നമുക്ക് നോക്കാം ആ ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ

ആ ആ ആ ആ അപ്പം ആ ആ ഫാമിലീലെ എല്ലാവർക്കും പറ്റും ആ ആ ആ ആ ആ ആ ആ നമ്മൾ യെ ആ എത്ര ആ ആ ആ എത്രയാണ് ഇയറ് കൂടുമ്പം യെ ആ ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ഓക്കെ മാ

ആ ആ

ആ ആ ആ ഏജ് ലിമിറ്റെങ്ങനാണ് മേഡം ഏജ് ലിമിറ്റ് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ മേഡമൊരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങ്

ആ ആ ആ ആ ഓക്കെ ആ ആ വെൽക്കം ആ ശരി ശരി ആ ശരി ആ ആ